ആ ഹലോ പറഞ്ഞോ ആ അതെ അതെ

ആ ഉണ്ട് ഉണ്ട് ഏത് ടൈപ്പ് ആണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി ആ ഹാ ആ ആ ആ നല്ല ആ നല്ല സാധനമാണ് വലിയ കരിമീനാണ് നല്ലതാണ് ആ ഇവിടെ ഒരു കിലോ എന്ന് പറയുന്നത് വലിയത് ഒരു മൂന്നെണ്ണം ഒക്കെ വരുള്ളൂ മൂന്നെണ്ണം ആ ഹാ ഹാ ആ വൃത്തിയാക്കി തരും അപ്പം അതിന് ഒരു ഫീസ് ഉണ്ട് പത്ത് മുപ്പത് രൂപയും കൂടി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും ആ ആഹാ ആ വീട്ടിൽ വീട് പറഞ്ഞാൽ മതി അപ്പം വീട്ടിൽ കൊണ്ട് വേണമെങ്കിൽ വീട്ടിലെത്തിക്കാം ആ ആ സ്ഥലം ചെറു ചെറുതാവുമ്പോൾ ഒരു അഞ്ചെണ്ണമൊക്കെ കാണും ഏകദേശം ആഹാ ആ ഹാ ആ അപ്പം ഇവിടെ പിന്നെ വേഗം വരണം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിലേ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത്

ആഹാ അപ്പം ആ ആ ആഹാ ആ തരാം തരാം അപ്പം ക്ലീൻ ചെയ്യിച്ച് നമ്മൽ വീട്ടിൾ കൊണ്ടെത്തിക്കും

ആ എല്ലാത്തിനും നല്ലതാണ് വറുക്കാം ഫിഷ് മോളി വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം കുഴപ്പമില്ല

ആ ചെറുത് ആ ആ അതിൻ്റെ ഏറ്റവും വലുതിൻ്റെ താഴെയുള്ളതും ഉണ്ട് അത് ആ ആ അതാകുമ്പോൾ ഒരു കിലോയ്ക്ക് ഒരു ആ അഞ്ച് എണ്ണമൊക്കെ കാണും ഏകദേശം അപ്പോൾ അതെങ്ങനെ അത് വേണോ അത് വേണോ ആ ഹാ ഹാ ആ ക്ലീൻ ച് ആ ഹാ ആ ഹാ പിന്നെ വേറെ മീൻ തരങ്ങളുമൊക്കെ ഉണ്ട് ആ എന്തോ ആ ആ അതെ ആ ക്ലീനിങ്ങ് റേറ്റ് ഒക്കെ ഒരേ പോലെ തന്നെയാണ് ആ ഒരേ പോലെ തന്നെയാണ് അതിന് വ്യത്യാസമില്ല ആ ആ കരിമീൻ കൊഞ്ച് കിളിമീൻ അങ്ങനെയൊക്കെ ഉള്ള മീനുകളുമുണ്ട് കരിമീൻ കൂടാണ്ട് വേറെ മീൻ തരങ്ങളും ഒക്കെയുണ്ട് ആ ഹാ ഏ ഹാ ആ